ഹലോ ഹലോ ഗീതയാണ് രാഹുലിൻ്റെ അമ്മ അല്ലേ ആ ഞാൻ അവൻ്റെ ക്ലാസ് ടീച്ചറ് വിളിക്കുന്നത് ഓന് പഠിക്കുന്നുണ്ടോ വീട്ടിൽ ഒന്നും പറഞ്ഞത് കേൾക്കില്ല ക്ലാസ്സിൽ കോൺസെൻട്രേഷന് ഇല്ല കുറച്ച് ശ്രദ്ധിക്കണം അത് തന്നെ ടീച്ചേഴ്സിന് കൂടുതൽ പറയാനും പറ്റില്ല അടിച്ചാൽ അത് പ്രശ്നം കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ ട്യൂഷന് വിടണം അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് പഠിപ്പിക്കണം ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയത്തും ഓൻ്റെ കളി തന്നെ വേറെ ഇങ്ങനെ പോയാൽ ശരി ആവില്ല ഇനി ഇനി ഹൈസ്കൂളിലേക്ക് അല്ലേ പോവുന്നത് കുറച്ചും കൂടെ നല്ല വണ്ണം ശ്രദ്ധിക്കണം ആ ടി വി നോക്കുന്നത് എല്ലാം കുറച്ച് കുറച്ചാൽ മതി ഫോണും കൊടുക്കണ്ട ഫോണിലിപ്പം അവർക്ക് ഇപ്പോൾ ആറാം ക്ലാസ്സിലേക്ക് ഉള്ള ഫോണിൽ ഒന്നും കൊടുക്കലില്ല ഞാൻ എല്ലാ നോട്ട് കൊടുക്കുന്നുണ്ട് നോട്ട് നല്ല വണ്ണം ശ്രദ്ധിച്ച് ഓൺലൈൻ ക്ലാസ് ഇല്ല നിങ്ങൾക്ക് ഒന്ന് എന്നെ വിളിച്ച് ചോദിച്ചാൽ പോരെ ഓൺലൈൻ ക്ലാസ് ഉണ്ടോ ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ പറയും പ്രത്യേകിച്ച് പാരൻ്റ്സിനോട് പറയും മക്കൾ ഇപ്പോൾ ഫോൺ എടുത്തിട്ടാണ് ഇങ്ങനെ തീരെ പഠിപ്പ് ഇല്ലാത്തത് അതുകൊണ്ട് നിങ്ങൾ നല്ല വണ്ണം ശ്രദ്ധിക്കണം ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എന്തായാലും വിളിച്ച് പറയും ഓൺലൈൻ ക്ലാസും കൊടുക്കുന്നില്ല ഓൺലൈനിൽ നോട്ട്സും കൊടുക്കുന്നില്ല നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി നീ ഓൺലൈനിൽ നോട്ട്സ് തരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫോണ് കൊടുക്കണ്ട ആവശ്യം ഒന്നും ഇല്ല ഓൺലൈനിൽ നോട്ട്സ് ഒന്നും കൊടുക്കലില്ല ഇപ്പോൾ എല്ലാം ആ ക്ലാസിൽ നിന്ന് തന്നെ ചെയ്യിപ്പിക്കുന്നുണ്ട് പക്ഷെ അവൻ നല്ല വണ്ണം ഉഴപ്പ് പഠിക്കുന്നത് ഇല്ല ചെയ്യുന്നും ഇല്ല ഒന്നും പറഞ്ഞത് കേൾക്കുന്നും ഇല്ല ട്യൂഷന് പറ്റുന്നേ നിങ്ങൾ ട്യൂഷന് വിടുന്നതാണ് നല്ലത് ട്യൂഷന് വിട്ടാലും പോര വീട്ടിൽ നിന്ന് നോക്കണം ട്യൂഷനിലും ഇതേ കളി കളിച്ചാൽ പഠിക്കുക ഒന്നും ഇല്ല ട്യൂഷന് വിട്ടിട്ട് നിങ്ങൾ കുറച്ച് നല്ല വണ്ണം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ജോലിക്ക് പോവുന്നതു കൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നാലും രാത്രി കുറച്ച് നേരമെങ്കിലും ഇരുന്നിട്ട് കുറച്ച് ശ്രദ്ധിക്കണം അവന് ഇവിടെ ഒന്നും കേൾക്കുന്നില്ല നമ്മൾക്ക് പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ ആ ചോദിക്കാം മൊബൈല് കൊടുക്കണ്ട മൊബൈല് കൊടുക്കാതിരിക്കും നല്ലത് മൊബൈല് നോക്കിയിട്ട് തന്നെ മൊബൈല് ആവശ്യത്തിന് വേണം പക്ഷെ നോട്ട്സ് ഒന്നും അതിൽ കൊടുക്കുന്നും ഇല്ല അത് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നോട്ട്സിന് വേണ്ടിയിട്ട് മൊബൈല് കൊടുക്കണ്ട ഓക്കെ ആ ആ ശരി ബൈ